ഹലോ എന്റെ പേര് എവ്ലിൻ ഞാൻ നിങ്ങളുടെ റസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം ഓഡ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വേണ്ട ഭക്ഷണമെന്നു പറയുന്നത് ചിക്കൻ ന്യൂഡിൽസ് ഒന്ന് അൽഫാം ഹാഫ് ഒന്ന് കുബ്ബൂസ്സ് രണ്ടെണ്ണം എന്നിവയാണ് ഇത് ഞാൻ ഓഡ്റ് ചെയ്യുന്നത് ഈ ഇപ്പോള് പറയുന്ന വിലാസത്തിലേക്കാണ് നിങ്ങൾ ഡെലിവർ ചെയ്യേണ്ടത് ഷീനാ മോൾ മാത്യു ചക്കാല കണ്ടത്തിപ്പറമ്പ് കിടങ്ങറ പി ഒ ആലപ്പുഴ